ഞങ്ങളുടെ പ്രദേശത്ത് നേരിടുന്ന പാരിസ്ഥിതിക വെല്ലുവിളി എന്നു വച്ചാൽ പ്ലാസ്റ്റിക്ക് തന്നെയാണ് മലിനീകരണം അത് അത് നിക്ഷേപിക്കാനുള്ള സ്ഥലവും വേസ്റ്റ് ബാസ്ക്കറ്റുകളും അതൊക്കെ തന്നെയാണ് നേരിടുന്ന എറ്റവും വലിയ വെല്ലുവിളി ഇപ്പോൾ അതു സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അത് അതാതു സ്ഥലത്തു തന്നെ നിക്ഷേപിക്കുന്നു വലിച്ചെറിയാതിരിക്കുന്നു എല്ലാം കുറച്ചു വൃത്തിയായി തന്നെ കൊണ്ടുനടക്കാൻ ശ്രമിക്കുന്നു